തീർച്ചയായിട്ടും സ്റ്റാമ്പുകൾ അല്ലെങ്കിൽ നാണയങ്ങൾ കല്ലുകൾ ഇവ പ്രത്യേക ലക്ഷ്യങ്ങൾ ഒന്നുമല്ല നമ്മുടെ അഭിലാഷങ്ങളാണ് നമ്മളാദ്യം പൂർത്തീകരിക്കേണ്ടത് ആ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുകയും പിന്നീട് അത് ലക്ഷ്യങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഒരു സന്തോഷത്തിനും മാനസിക ഒരു മാനസിക സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യമേ നമ്മൾ ചെയ്യുന്നത് പക്ഷെ പിന്നീട് ഇത് ഭാവിതലമുറയ്ക്ക് ഈ സ്റ്റാമ്പ് പഴയ സ്റ്റാമ്പുകൾ നാണയങ്ങൾ അതുപോലെതന്നെ ഈ കല്ലുകളൊക്കെ ആണെങ്കിലും പഴയ തലമുറയ്ക്ക് ഇത് കാണിച്ചു കൊടുക്കുകയും അതുവഴി അവരെ ബോധവൽക്കരിക്കുകയും ഇങ്ങനെയൊരു കാര്യങ്ങളിലൂടെയാണ് തപാൽ സ്റ്റാമ്പുകളിലൂടെയാണ് ലെറ്ററുകൾ വഴിയാണ് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണിത് നമുക്കതിന് എത്ര പൈസ നമ്മൾ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് അതൊക്കെ പറഞ്ഞു കൊടുക്കാനും അതുവഴി അവരെ കൂടുതലായിട്ട് അറിവ് ഉണ്ടാക്കി കൊടുക്കാനുമൊക്കെ കൃത്യമായിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെതന്നെ ഇന്ന് അന്യം നിന്നുപോകുന്ന കാര്യങ്ങളൊക്കെയാണ് ലെറ്ററുകൾ നാണയങ്ങളെ സംബന്ധിച്ചെടുത്ത് ഇപ്പോൾ ഡിജിറ്റൽ ഏജിലാണ് നമ്മൾ ജീവിക്കുന്നത് സ്വാഭാവികമായിട്ടും നാണയങ്ങളുടെ മൂല്യങ്ങൾ അതുപോലെ തന്നെ അതും കുറഞ്ഞു വരികയാണ് നാണയങ്ങൾ കണ്ടിന്യൂസായിട്ട് പിൻവലിക്കുക എന്നുള്ളതാണ് അതായത് ക്യാഷ്ലെസ്സിലേക്ക് പോവുക എന്നുള്ളതാണ് നയം തന്നെ ലോകത്തിൻ്റെ നയം തന്നെ സാമ്പത്തിക നയം തന്നെ അതാണ് അപ്പോൾ അതു നമ്മൾ സൂക്ഷിച്ചു വെച്ച് നമ്മുടെ അഭിലാഷ പൂർത്തീകരണവും തന്നെയുമല്ല നമ്മൾ ഈ ബാക്കിയുള്ളവരെ ഇതിങ്ങനെയൊരു കാര്യമുണ്ട് എന്നു ബോധിപ്പിക്കുകയും ചെയ്യുക